ഹലോ ആമസോൺ ചാറ്റ് ബോക്സ് ഞാൻ കഴിഞ്ഞ ആഴ്ച്ച അതായത് പിന്നെ പതിനാറാം തീയ്യതി ഒരൂ നത്തിങ്ങിൻ്റെ സി എം എഫ് വാച്ച് ഓഡ്റ് ചെയ്തിരുന്നു പക്ഷേ അതിൻ്റെ ഡെലിവെറീ ഡേയ്റ്റ് ഞാൻ ഒരു അഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ കാണിച്ചു ബുക്ക് ചെയ്തത് അത് ഇരുപത്തി ഒന്നാം തീയ്യതി കിട്ടുമെന്നാണ് പിന്നെ അതിനകത്ത് മൊബൈൽ ഓൺലൈൻ സൈറ്റ് കാണിച്ചത് പക്ഷെ എനിക്ക് ഇപ്പം അത് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അത് ട്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഒന്ന് സഹായിക്കാമോ തീർച്ചയായിട്ടും ഞാൻ ഇരുപത്തി ഒന്നാം തീയ്യതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെയാണ് ഞാൻ അത് ബുക്ക് ചെയ്തത് ഇപ്പോൾ അത് വീണ്ടും രണ്ട് ദിവസം കൂടെ കഴിയുമോ അല്ലേൽ ഒരു ആഴ്ച്ച കഴിയുമോ എന്നെനിക്ക് അറിയില്ല എനിക്ക് ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പം ആ ഫങ്ഷനിൽ ഇത് കെട്ടാൻ സ്മാട്ട് വാച്ച് കെട്ടാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ഇത് അയ്യായിരം രൂപ കൊടുത്ത് ഞാൻ അത് ഓഡ്റ് ചെയ്തത് തീർച്ചയായിട്ടും നിങ്ങളുടെ സൈറ്റ് ഡെലിവറിക്ക് വളരെ പിന്നെ ഡെലിവറി ഡേറ്റ് കൃത്യമായി പാലിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ സൈറ്റ് വഴി ഈ വാച്ച് ഓഡ്റ് ചെയ്തത് അപ്പം അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ പിന്നെ എന്നെ ഒന്ന് അറിയിക്കണമെന്ന് മയിൽ വഴിയോ അല്ലെങ്കിൽ വാട്സ്പ്പ് വഴിയോ അല്ലെങ്കിൽ സൈറ്റിൽ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ ഇടണം ഇടുമെന്ന് ഞാൻ പ്രതീഷിക്കുകയാണ്